പത്തുലക്ഷത്തിനും പത്തുലക്ഷം പത്തിനും പത്തുലക്ഷത്തിനും ഇടയിലുള്ള നമ്പേഴ്സ് ഏതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുലക്ഷം പിന്നെ അഞ്ചുലക്ഷം പിന്നെ പത്തായിരം ഇ ഇരുപതിനായിരം പിന്നെ അൻപതിനായിരം ഇതാണ് പത്തുലക്ഷത്തിനും പത്തിനും പത്തുലക്ഷത്തിനും ഇടയിലുള്ള നമ്പേഴ്സ്